സാറേ നിങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് എനിക്കൊരു മെ ഒരു മെസേജ് വന്നു എൻറ്റെ കറൻറ്റിൻറ്റെ ബില്ല് ബാക്കിയുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ അടച്ചില്ലെന്ന നിലയിലെ എൻറ്റെ കണക്ഷൻ നിഷേധിക്കും എന്നൊക്കെ എനിക്കൊരു മെസേജ് വന്നിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ടും എൻറ്റെ ബില്ലു മുഴുവൻ ഞാൻ അടച്ചതാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നതുമാണ് വന്നു കഴിഞ്ഞപ്പോഴവിടുത്തെ റെകോർഡ്സ് എല്ലാം പരിശോധിച്ചപ്പോൾ എൻറ്റെ കാർ ബില്ലൊക്കെ അവിടെ എൻറ്റെ പേമെൻറ്റായിട്ടുണ്ട് പക്ഷേ അത് എന്തോ അവിടുത്തെ എണ്ട്രിയിലെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് അതു വളരെ വ്യക്തമായിട്ട് എല്ലാം പരിശോധിച്ചപ്പോൾ എനിക്ക് കുടിശ്ശിക ഒന്നും ഇല്ല എന്നു ബോധ്യപ്പെടുത്തി പിന്നെ അവരോട് ഒരു കാര്യം പറഞ്ഞിങ്ങനെ നാട്ടുകാരെയിട്ടു വിഷമിപ്പിക്കരുതെന്നൊക്കെ അവരോടു ഞാനിങ്ങനെ പറയൊക്കെ ചെയ്തിട്ടു ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ് കാര്യങ്ങൾ എല്ലാം തീർന്നു എനിക്ക് കുടിശ്ശിക ഒന്നും ഇല്ല പിന്നെ അവരുടെ സേവനങ്ങളൊക്കെ നിങ്ങളുടെ സേവനങ്ങളൊക്കെ വളരെ നല്ലതൊക്കെയാണ് പിന്നെ നമ്മുടെ നാടൻ പ്രദേശമായതു കൊണ്ടു പല കുറേ ബുദ്ധിമുട്ടുകളും ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വരുന്നതും കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തെ ബുദ്ധികളൊക്കെ ഉണ്ടാ എന്നാലും വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ടു സമയാ സമയങ്ങളിൽ എല്ലാം നടത്തി തരുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തു തരുന്നതിനു നന്ദി